പഴയ മാധ്യമങ്ങൾ പണ്ട് ആകാശവാണി ആയിരുന്നു ന്യൂസ് റേഡിയോയിൽ ഉള്ള ന്യൂസുകള് അതൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഞങ്ങള് കേട്ടുകൊണ്ടിരുന്നത്

മൊത്തം വായിച്ച് കഴിഞ്ഞാണ് ഒരു സംതൃപ്തി വരുന്നത് പിന്നെ ആകാശവാണിയുടെ ന്യൂസുകളെല്ലാം കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു വ

ഇപ്പം എല്ലാ ന്യൂസും സ്പോട്ടിലാണ് കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സമയം ന്യൂസ് കേട്ടുകൊണ്ടിരിക്കാന് ഒക്കുകയില്ല എന്നിരുന്നാലും നവ മാധ്യങ്ങൾ കാ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി പുതിയ പുതിയ പുതിയ അപ്പോഴുള്ള സ്പോർട്ട് ന്യൂസുകളപ്പോൾ തന്നെ ലൈവായിട്ട് നമ്മളെ കാണിക്കും കണ്ടിരിക്കും എക്സാമ്പിള് തന്നെ നമ്മുടെ ഈ കർണാടകയിൽ ലോറി മറിഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോരോ കാര്യങ്ങൾ ലൈവായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ആദ്യം ടി വി ഇറങ്ങിയപ്പോൾ തന്നെ ഡി ദൂരദർശൻ മാത്രമല്ലെ ഉണ്ടാരുന്നത് ഇപ്പം ആണെങ്കിൽ പതിനായിരക്കണക്കിന് ചാനലുകളാണ് ഏത് ചാനൽ എപ്പോൾ വേണേലും ന്യൂസുകൾ അവൈലബിളാണ് അത് നമുക്ക് മ മാറി മാറി ചാനലുകള് വന്ന് കണ്ടിരിക്കാം മാറ്റം ഈ നവ മാ പഴയ മാധ്യമങ്ങളും നവ മാധ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നവ മാധ്യങ്ങളിൽ സ്പോട്ട് ന്യൂസ് കിട്ടുന്നുണ്ട് പഴയ മാധ്യങ്ങളിൽ ആകാശവാണി ദൂരദർശൻ മുതലായ ഗവൺമെൻറ്റ് ചാനലുകളിൽ മുഖേനയായിരുന്നു നമുക്ക് വാർത്തകൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പഴാണെങ്കിൽ ആയിരക്കണക്കിന് ചാനലുകളുണ്ട് സ്പോട്ട് ന്യൂസ് സജഷനാണേൽ വാർത്തകൾ എല്ലാം തന്നെ അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലും ടിവിയിലും എല്ലാം തന്നെ കിട്ട് കിട്ടിക്കൊണ്ടിരിക്കും പഴയ മാധ്യങ്ങളെന്ന് വെച്ചാല് പഴയ മാധ്യമം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂസുകളിൽ ആ വ്യത്യാസം എന്താ ആ വ്യത്യാസമായിട്ടൊന്നുമില്ല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകള് സത്യസന്ധമാണോ എന്ന് അറിയത്തില്ല എന്നാലും ലൈവായി കിട്ടുന്ന വാർത്തകള് നമുക്ക് സത്യസന്ധമായി ആണെന്ന് വി വിചാരിക്കാം വിചാരിക്കാം ഏത് വാർത്തയും അപ്പോൾ തന്നെ സ്പോട്ടിൽ കിട്ടുന്നുണ്ട് ഈ ഈ നവ മാധ്യങ്ങളിൽ പഴയ പഴയ കാലത്താണെങ്കിൽ ഇത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ ആളുകൾ വാർത്തകൾ കിട്ടുന്നത് കുറെ താമസിച്ചൊക്കെയായിരുന്നു ഇപ്പോൾ അത്യാധുനിക സൗകര്യമുള്ള ക്യാമറകളും എല്ലാം തന്നെ ഉണ്ട് ആയതിനാൽ ഇപ്പോളത്തെ ന്യൂസ് കൂടുതലും സത്യസന്ധവും സത്യസന്ധമായിരിക്കാനേ സാധ്യതയുള്ളൂ

വ്യത്യാസം എന്താ എല്ലാം ന്യൂസ് തന്നെ ആ ന്യൂസ് ന്യൂസിൽ പഴയ മാധ്യമങ്ങളും നവ മാധ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നുവെച്ചാൽ പഴയ മാധ്യങ്ങളിൽ ന്യൂസുകൾ കുറേ കഴിഞ്ഞ് കിട്ടും നവ മാധ്യങ്ങളിൽ സ്പോട്ട് ആയിട്ട് ലൈവായിട്ട് ന്യൂസ് കിട്ടും അത്രേയുള്ളൂ